ഞങ്ങളിവിടൊരു ക്ലോത്തിങ്ങ് സ്റ്റോറുണ്ട് നമ്മളവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം എല്ലതും ചെയ്തു കൊടുക്കുന്ന ഒരു ക്ലോത്തിംഗ് സ്റ്റോറാണ് കുറേ സിനിമകളിലൊക്കെ ആളുകൾ വന്നത് ഫാഷൻ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന ആളുകളൊക്കെ വന്നിട്ട് നമ്മോട് പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സിനിമകളിലൊക്കെ നമ്മൾ കുറച്ച് സിനിമകളിൽ പത്ത് പതിനഞ്ച് സിനിമകളിലൊക്കെ നമ്മൾ ഇതുപോലെ നമ്മളുടെ ഡ്രസ്സുകള് അവർക്ക് റെൻറിനായിട്ടും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ ചില ചില സിനിമ നടികളൊക്കെ വന്നിട്ട് നമ്മളെ ഡ്രസ്സുകൾ വാങ്ങാറുണ്ട് കസ്റ്റമൈസിങ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പം ഇല്ലാത്ത രീതിയിൽ റേറ്റിങ്ങും റിവ്യൂസും റിവ്യൂസും ഒക്കെ കിട്ടുന്ന ഒരു ക്ലോത്തിങ് ഷോപ്പാണ് നമ്മളുടേത് പിന്നെ ഫാഷൻ ഷോപ്പ്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്ത്സ് കൊടുക്കാറുണ്ട് അതുപോലെത്തന്നെ ഓർണമെൻറ്സ് അത് നമ്മളിവിടെ ഉണ്ടാക്കി ഓർണമൻസാ നമ്മൾ പല പല ഫാഷൻ ഷോകളിൽ പല പല തീമായിരിക്കും ഓരോരോ ആൾക്കാർക്ക് ഉണ്ടാവുന്നത് അപ്പം അത് ഞമ്മളത് മാനിച്ച് അവർക്കതുപോലത്തെ ജ്വല്ലറീസും കമ്മിലും മാലയും ഒക്കെ ഉണ്ടാക്കുന്നു അതുപോലെത്തന്നെ നമ്മളതേപോലെത്തന്നെ ക്ലോത്ത് അതായത് ഡ്രസ്സും ഞമ്മളതേപോലെത്തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം അതൊക്കെ ഒരു കലകളും കരകൗശല വസ്തുക്കളുമാണ്

പരസ്യങ്ങളിൽ ഉപയോഗിച്ച സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പല ക്ലോത്ത് ഡ്രസ്സുകളായാലും ഓർണമെൻസ് ആയാലും അപ്പത്തെ നമ്മൾ ഫുഡുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അതൊക്കെ ഒരു ഉണ്ടാക്കുന്നതല്ല കലകളല്ല അപ്പോൾ നമ്മൾ നമ്മൾ നല്ല നല്ല കേക്കുകൾ അതുപോലെത്തന്നെ ഇതുപോലെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അല്ല നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കലകളും കരകൗശാല വസ്തുക്കളൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് കുഴപ്പം ഇല്ലാത്ത പൈസയും കിട്ടും അത്യാവശ്യം റേറ്റിങ്ങും വരും ഓർഡറുകളും നമുക്ക് കിട്ടാറുണ്ട് അല്ലാതെ നമ്മൾ നമ്മൾ സാധനം നേരിട്ട് വാങ്ങാറും ഉണ്ട് അപ്പം ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഫാഷൻ ഷോകളിലും അതുപോലെത്തന്നെ സിനിമകളിലും പരസ്യങ്ങളിലൊക്കെ സഹായിക്കുന്നവർ അതായത് ഇപ്പം സിനിമകളിൽ ഇതുപോലെത്തന്നെ ഡ്രസ്സുകൾ പല സ്ഥലത്തുനിന്നും വാങ്ങിയ ഡ്രസ്സുകൾ അതുപോലെത്തന്നെ ഫാഷൻ ഷോകളിൽ ഡ്രസ്സ് ഓർണമെൻറ്സ് സംഭവങ്ങളെ പരസ്യങ്ങളിലും ഇതുപോലെത്തന്നെ ഓർണമെൻറ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഡ്വെർടൈസ്മെൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും പല വേറെ വേറെ കാര്യങ്ങൾക്കും പരസ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അഡ്വർടൈസ്മെൻറ് ചെയ്യാനും അതുപോലെത്തന്നെ കരകൗശലശാലകൾക്ക് വസ്തുക്കളെക്കുറിച്ച് പറയാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ